ആ ആരായിരുന്നു അല്ല അതെ

അതെ അതെ ഞാന് പ്രീ വെഡ്ഡിംഗും ഫോട്ടോഗ്രഫിയുമൊക്കെ എടുക്കുന്നയാളാണ് ഷൂട്ടെടുക്കുന്നയാളാണ് ഓ ഓക്കെ ആ ആ ആ നമുക്ക് ആ എനിക്ക് അടുത്ത മാസം ആ എനിക്ക് പതിമൂന്ന് വരെ പന്ത്രണ്ട് വരെ എനിക്കിഷ്ടം പോലെ വർക്കുകളുണ്ട് കുഴപ്പമില്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വരാം പതിനാലിന് എങ്ങനെയെങ്കിലും വരാൻ നോക്കാം ഓക്കെ ആ അത് ആ അത് കുഴപ്പമില്ല അത് നമുക്കെങ്ങനെയെങ്കിലും ചെയ്തെടുക്കാവുന്നതേയുള്ളൂ അത് നമുക്ക് ഫോട്ടോ ഷൂട്ടൊക്കെ നടത്തി ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റിടാനൊക്കെയുള്ള പരിപാടിയല്ലെ ആണ്

പിന്നെ നാല് ലക്ഷം അത് നെഗോഷ്യബ്ളാണ് പിന്നെ ഫോട്ടോഷൂട്ടിന് വേണ്ടി തന്നെയാണെങ്കില് നമ്മളൊരു ഒരു ലക്ഷം രൂപയ്ക്ക് നമ്മള് പരിപാടി തീർക്കും പിന്നെ ബാക്കി ഡ്രോണും കാര്യങ്ങളും കല്യാണത്തിൻ്റെ സമയത്തുള്ള കാര്യങ്ങള് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ആ ഇത് പിന്നെ വിലകൂടുന്നത് ഫോട്ടോഷൂട്ടിന് മൊത്തത്തില് ആ ആ ഡ്രോണിന് നമുക്കൊരു

ഡ്രോണിന് തന്നെയൊരു നല്ല വിലയാകും പിന്നെ അതുകൊണ്ട് നമ്മള് ഈ ലോണെല്ലാം അടച്ച് പോകണമല്ലോ അതുകൊണ്ട് ഡ്രോണും കാര്യങ്ങളുമൊക്കെ ഇത്തിരി നമ്മുടെ പ്രൈസുണ്ട് ആ അപ്പോളത് നിങ്ങള് നോക്കിയിട്ട് പറഞ്ഞാല് മതി ഡ്രോണിനും കാര്യങ്ങള്ക്കും ഡ്രോണും കാര്യങ്ങളുമില്ലാതെ വരുമ്പോഴത്തേക്കും ഒരു ഒരു രൂപയോളം കുറയും അല്ല ഞാൻ എൻ്റെ കൂടെ മെയിനായിട്ട് ഒരു നാല് പേര് അസ്സിസ്റ്റൻറുമാര് എല്ലാവരും കൂടി വരുമ്പോഴാണ് ഇത്രയും ഉണ്ടാകും നമുക്ക് അപ്പ ഇത്രയും പേരുണ്ടെങ്കില് നമുക്ക് ഭയങ്കരം എളുപ്പമാകും എല്ലാ മൊമൻറ്റും നമുക്ക് അത്യാവശ്യം ക്യാപ്ച്ചര് ചെയ്യാന് പറ്റും ആ ആ എനിക്ക് പതിമൂന്ന് പന്ത്രണ്ട് വരെ വർക്കുണ്ട് പന്ത്രണ്ട് വരെ വർക്കുണ്ടെന്നാണ് എന്റെയൊരു വിശ്വാസം ഇല്ല ഫോട്ടോഷൂട്ടിന് നമ്മള് അഡീഷ്നൽ നമ്മള് ഡേറ്റ് പറയുകയാണെങ്കില് നമുക്കന്ന് സെറ്റ് ചെയ്യാവുന്നതേയുള്ളൂ ആ ആ അതുമതി ഏതെങ്കിലും ഒരു ദിവസം പറഞ്ഞാല് നമുക്ക് സ്ഥലവും കാര്യങ്ങളുമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുകയാണെങ്കില് നമുക്ക് അത്യാവശ്യം നമുക്ക് വേണമെങ്കില് വരാം പിന്നെ നമ്മള് വേണമെങ്കില് നമുക്ക് തന്നെ സ്ഥലം സജസ്റ്റ് ചെയ്യാം നിങ്ങള്ക്കങ്ങനെ അറിയില്ലെങ്കില്

ആ നിങ്ങള് എന്ത് തീമാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയുകയാണെങ്കില് നമുക്ക് അത്യാവശ്യം ഡ്രസ്സും കാര്യങ്ങളുമൊക്കെ ഒപ്പിക്കാവുന്നതേയുള്ളൂ ഡ്രെസ്സും കാര്യങ്ങളും ഒരു വേണമെങ്കില് ഹോളിവുഡ് തലത്തിലുള്ള സംഭവം സെറ്റ് ചെയ്യാം അങ്ങനെയാണെങ്കില് കോട്ടും സ്യൂട്ടും അപ്പുറത്ത് ഒരു ഫോർമലായിട്ടുള്ള രീതിക്ക് നമുക്ക് മൂന്നാർ വട്ടവട ആ ഒരു സ്ഥലത്ത് നമുക്ക് ചെയ്യാവുന്നതേയുള്ളൂ ഈ ഫോട്ടോഷൂട്ടിന് ഇത്രയും ഹോളിവുഡ് രീതിയില് ഒരു കോസ്ട്യും ഉണ്ടാക്കുകയുമൊക്കെ വരുമ്പോഴത്തേക്കും ഒരു ഒന്നൊന്നര ലക്ഷം രൂപയ്ക്ക് അടുത്താകും ഫോട്ടോഷൂട്ടിന് തന്നെ ആ അപ്പോള് ആ ഓക്കെ വേറെ കാര്യങ്ങളൊന്നുമില്ല വേറെ അഡീഷ്നലായിട്ടൊന്നുമില്ല അപ്പോള് വിളിച്ചാല് മതി ഞാന് വന്നേക്കാം ഓക്കെ അതുതന്നെ കോണ്ടാക്റ്റ് നമ്പര് സെയിമാണ് ഓക്കെ താങ്ക് യൂ